ഹലോ ബേക്കേഴ്സ് സൂപ്പർ മാർക്കറ്റ് ആരായിരുന്നു വിളിക്കുന്നു എന്തായിരുന്നു സർ ഡീറ്റെയിൽസ് ഓഫറ് കാര്യങ്ങള് അറിയാൻ വേണ്ടി ആയിരുന്നോ ഇത് മാനന്തവാടി എരുമത്തെരുവിലാണേ

നമ്മുടെ ഇപ്പം റൈസില് വരുന്നുണ്ട് ഓഫറ് റൈസ് ഐറ്റംസില് വരുന്നുണ്ട് പിന്നെ ഫ്രൂട്സ് വെജിറ്റബിൾസ് കാര്യായിട്ടില്ല വെജിറ്റബിൾസ് ഒരു നാലെണ്ണം ഒക്കെയാണ് ഓഫറ് വരുന്നത് പിന്നെ നമ്മുടെ ഈ പയറ് വർഗങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് ഓഫറ് അത് ചെറുപയറ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ആ ഹോം ഡെലിവെറി ഉണ്ട് ആ നമ്മുടെ അഞ്ച് കിലോമീറ്റർ പരിതിയിലായിരിക്കും ഡെലിവെറി ഉണ്ടാവുക കെട്ടൊ മിനിമം മിനിമം ആയിരം രൂപേടെ പർച്ചെയ്സ് നടത്തണം അത് സ്റ്റോക്ക് എടുക്കാനാണ് അത് ആ ഇരുപത് മുപ്പത് ശതമാനൊക്കെയാണ് വരുന്നത് വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് ഫ്രൂട്സിനൊക്കെ ഉണ്ട് ഫ്രൂട്സിൻ്റെ ഓഫേഴ്സുണ്ട് അ പപ്പായ റൊമാനിയ മാങ്കോ സിട്രസ്സ് നീലൻ മാങ്ങ ആ ഫ്രൂട്സ് വെജിറ്റബിള് പിന്നെ റൈസുകള് റൈസൊണ്ട് അ ഓല മട്ട ഈ റൈസിനൊക്കെ ഓഫറ് വരുന്നുണ്ട് ഓക്കെ താങ്ക് യു